ഫോർ യു മീറ്റ് മാർട്ട് അല്ലേ ആ എനിക്കേ ഒരു എനിക്കൊരു പതിനഞ്ച് കിലോ ബീഫ് വേണമായിരുന്നു ആ അവിടെ കിട്ടുമോ ആ

അതായത് എന്ത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് തരുമോ ആ ഒരു ഒന്നര കിലോമീറ്റർ ആ വണ്ടി വരും വണ്ടി വരും റോഡ്സൈഡിലാണ് ഒന്നര ആ നിങ്ങൾ ആ വിളിച്ച് ആ നമുക്ക് നല്ല ആ ഫ്രഷ് ആയിരിക്കണം അന്നന്നത്തേത് ആയിരിക്കുമോ ആ എനിക്ക് വേണ്ടത് ആ എ ആ എനിക്ക് വേണ്ടത് സ സെപ്റ്റംബർ ഇരുപതാം തീയതി ആണേ അപ്പം നേരത്തെ ബുക്ക് ചെയ്യുവാണ് അതിന് എനിക്ക് പ ആ മീ മീഡി ആ അത് ഞങ്ങൾക്ക് മീഡിയം മീഡിയത്തിൽ തീരെ ചെറുതാവല്ല് മീഡിയം പീസുകളാക്കി തരണം ഇരുപത് ആ ആ ഉവ്വ് ആ ഇരു ഇരുപതാം തീയതി അല്ല ഞങ്ങൾക്ക് ഇരുപ എനിക്ക് പത്തൊൻപതാം തീയതി വൈകുന്നേരം ഉച്ച കഴിയുമ്പോൾ കിട്ടണം ആ വീട്ടിൽ കിട്ടണം അത് ഫ്രഷ് ആയിരിക്കണം അന്നത്തെ അന്നത്തേതായിരിക്കണം ആ വണ്ടി വണ്ടി വണ്ടി വരും വണ്ടി വരും ആ ആ ആ ഈ ഫോൺ നമ്പർ ഈ ഫോൺ നമ്പർ ആയിട്ട് കണക്റ്റ് ചെയ്താൽ മതി ആ ആ പതിന ആ പതിനഞ്ച് കിലോ മതി പിന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്യണോ ഞങ്ങൾ ആ ഓക്കെ ഈ ഈ ഈ ഈ ഫോർ യു മീറ്റ് മാർട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഞങ്ങളുടെ വീടിന് കേട്ടോ ആ ആ വേറെ ഇപ്പോൾ ഒരു കാര്യം ഓർക്കണം അത് ഞങ്ങൾ പറഞ്ഞോളാം അത് ഞങ്ങൾ പറഞ്ഞോളാം പക്ഷേ നല്ല ഇറച്ചി ആയിരിക്കണം അതിനകത്ത് വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല ആ ഓക്കെ ആ ഓക്കെ ഓക്കെ എന്നാൽ

ആ ആ ഇനി ഞങ്ങൾക്ക് വരുന്നുണ്ട് വേറൊരു ഒരു മാര്യേജ് ഫംഗ്ഷൻ വരുന്നുണ്ട് അതിന് ഞങ്ങൾക്ക് തരണം നിങ്ങൾ ഈ പ്രാവശ്യം നിങ്ങൾ എങ്ങനെയാണ് തരുന്നതെന്ന് ആലോചിക്കട്ടെ എങ്ങനെ തരുന്നതെന്ന് കാണട്ടെ അതനുസരിച്ചിട്ട് ഞങ്ങൾ ആ ഓക്കെ ഓക്കെ ഓക്കെ ആയി